ചിലരൊക്കെ ഇപ്പോൾ ജ്യോതി അതായത് ജ്യോതിശാസ്ത്രമായിട്ട് ഒരുപാട് അതായത് ആ ഇതിൽ തന്നെ ഒര് അഡിക്റ്റായി പോവുന്ന ആൾക്കാര് ഒരുപാടുണ്ട് ഇപ്പഴത്തെ കാലത്ത് അതായത് അവരിപ്പോൾ ജ്യോതിഷൻ ഇപ്പോൾ എന്ത് പറയുന്നോ അതാണ് വേദവാക്യം ആ ഒര് രീതിയില് നടക്കുന്ന ആൾക്കാര് ചിലപ്പോൾ ചിലരൊക്കെ പറയുന്നത് കറക്റ്റായിരിക്കും അത് എല്ലാവരും ഇതായിട്ട് പറയുന്നില്ല കുറെ പേരൊക്കെ നല്ലവര് കുറെ പേര് ഉടായിപ്പായിട്ട് നടക്കുന്ന ഒരുപാട് ജ്യോതിഷന്മാരുണ്ടാവും അപ്പം ചിലരൊക്കെ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളറിയാതെ തന്നെ അവരുടെ മുന്നിൽ പെട്ട് പോവും അവരെന്താണ് പറയുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കേട്ടിട്ട് ആ ഒര് മൈൻഡില് ആ ഒര് മൈൻഡില് അവരെന്ത് പറയുന്നോ അതുപോലെ ചെയ്യണം ചെയ്യുന്നു ആ ഒര് മൈൻഡില് ജീവിക്കുന്ന ഒരുപാട് പേരുണ്ട് ഇപ്പത്തന്നെന്ന് വെച്ചിട്ടുണ്ടെങ്കില് ഇപ്പോൾ നരഹത്യ എന്ന് പറഞ്ഞിട്ടുള്ളൊരു സംഭവം അതായത് അവരുടെ എന്തോ എന്താ എന്താന്ന് വെച്ചിട്ടിണ്ടെങ്കില് അവരെന്തോ ശാപം പോകാൻ വേണ്ടി ഒരു രണ്ട് പെണ്ണുങ്ങളെ പിന്നെ പ്രായം നോക്കിയിട്ട് വെട്ടിക്കൊന്ന് പിന്നെ കുഴിയിലാക്കിയൊരു സംഭവം എന്ന് വെച്ചാൽ അത് അത് തന്നെ നമുക്കൊരു എക്സാമ്പിളായിട്ട് എടുക്കാം അതൊക്കെ എന്ന് വെച്ചിട്ടുണ്ടെങ്കില് വളരെ വലിയ തെറ്റിദ്ധാരണയാണ് പിന്നെ എന്താന്ന് വെച്ചാൽ അങ്ങനത്തെ ഇനിയും അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ആർക്കും ജീവിക്കാൻ പറ്റാത്തൊരു അവസ്ഥയാവും അതേപോലെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട് ജ്യോതിശാസ്ത്രം ആയിട്ട് ബന്ധപ്പെട്ട് പറയാനാണെങ്കിൽ ഒരുപാട് തെറ്റിദ്ധാരണകളും ഉണ്ട്